ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഗ്രാമീണമേഖലകളിൽ അതായത് ആ ഗ്രാമത്തിൽ തന്നെ അല്ലെങ്കിൽ യുവാക്കൾക്ക് പലപ്പോലും പരിമിതമായ ജോലി അവസരങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇത് അവരെ മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് തേടി സിറ്റികളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നു ഗ്രാമീണ യുവാക്കൾക്ക് അന്വേഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നാൽ ചില പൊതുവായ റീറ്റെയ്ൽ ഹോസ്പിറ്റൽ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ സേവനമേഖലയിലെ ജോലികൾ ഇവർ ചെയ്യുന്നും ഉണ്ട് സാധാരണ ജോലികളെക്കുറിച്ചാണെങ്കിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന യുവാക്കൾ പലപ്പോലും കുറഞ്ഞ വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും ആവശ്യമുള്ള ജോലികൾ ഏറ്റെടുക്കുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സെയിൽസ് ഹോസ്പിറ്റാലിറ്റി ജോലികൾ ആരോഗ്യ സംരക്ഷണ ജോലികൾ നിർമ്മാണ ജോലികൾ അല്ലാതെ സാധാരണ തൊഴിൽ ജോലികൾ കോൾ സെൻ്റേഴ്സ് ഐ ടി ജോലികൾ എന്നിങ്ങനെ നഗരങ്ങളിലേക്ക് സിറ്റികളിലേക്ക് കുടിയേറുന്നത് മികച്ച തൊഴിൽ സാധ്യതകൾ അവർക്ക് വാഗ്ദാനം ചെയ്യുമ്പോഴായിരിക്കാം ഗ്രാമീണ യുവാക്കൾ പലപ്പോഴും പല വെല്ലുവിളികളും നേരിടുന്നവരാണ് അതായത് മത്സരങ്ങൾ ജോലിക്കായുള്ള തമ്മിൽ തമ്മിലുള്ള മത്സരങ്ങൾ പരിമിതമായ വിദ്യാഭ്യാസം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നഗര ജീവിതവും നഗര ജീവിതുമായി പൊരുത്തപ്പെട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ എന്നിങ്ങനെ എന്നിരുന്നാലും പക്ഷെ അവരുടെ മനോഭാവത്തിലൂടെയും അവർക്കുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ഗ്രാമീണ യുവാക്കൾ അവരുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സിറ്റികളിൽ വിജയകരമായ കരിയർ കെട്ടിപ്പടുക്കാനും കഴിയും ഗ്രാമീണ യുവാക്കൾക്ക് ഏറ്റവും പ്രചാരം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ സേവനമേഖലയിലാണ് പലരും മെച്ചപ്പെട്ട സാധ്യതകൾ സേവന മേഖലകളിൽ നഗരങ്ങളിലേക്കും കുടിയേറി ചെയ്യുന്നുണ്ട് പുതിയ കഴിവുകൾ നേടുന്നതിലൂടെയും നഗര ജീവിതവുമായും അവർ ഇടകലർന്നുചേർന്ന് പോകുമ്പോൾ വളർച്ചാമേഖലയിലെ തൊഴിലവസരങ്ങൾ ആക്സസ് ചെയ്യുന്നതിലൂടെയും ഈ ഗ്രാമീണ യുവാക്കൾക്ക് അവയെ മറികടക്കാൻ കഴിയും ഈ വെല്ലുവിളി ഈ വെല്ലുവിളികളെല്ലാം നേരിട്ട് അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിയും നഗരങ്ങളിൾ ചെന്ന് പാർത്ത് ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അവരുടെ കഴിയർ മെച്ചപ്പെടുത്താനും അവർക്ക് സാധിക്കുന്നു